ഞാൻ ജോലി ചെയ്യുകയല്ല പഠിക്കുകയാണ് ഏറ്റുമാനൂരപ്പൻ കോളേജിലാണ് പഠിക്കുന്നത് ഡിഗ്രി പഠിക്കുകയാണ് ബി എ എക്കണോമിക്സ് ആണ് എടുത്തേക്കുന്നത് രണ്ട് വർഷമായി ഇതെടുക്കാനുള്ള കാരണം എൻ്റെ ചേട്ടനാണ് ചേട്ടൻ പറഞ്ഞു ഡിഗ്രി പഠിക്കണം എന്ന് പറഞ്ഞു അപ്പം എക്കണോമിക്സ് ആണ് എനിക്ക് എളുപ്പം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ എക്കണോമിക്സ് എടുത്തത് അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സാമ്പത്തികശാസ്ത്രത്തെ കുറിച്ചുള്ളത് ആണല്ലോ അപ്പം എല്ലാരും നേഴ്സിങിന് പോവുന്നു അതുപോലെ തന്നെ ബി കോം പഠിക്കുന്നു എൻ്റെ എളുപ്പം വെച്ചാണ് ഞാൻ എക്കണോമിക്സ് എടുത്തത് അപ്പം നമ്മുടെ ഇവിടെയുള്ള സാമ്പത്തികത്തെക്കുറിച്ചും പുറത്തുള്ള സാമ്പത്തികത്തെക്കുറിച്ചുള്ളത് ഒക്കെ ആണല്ലോ നമ്മൾ ഞാൻ പഠിക്കുന്നത് അപ്പം സെക്കൻറ്റ് ഇയർ ആയി ഇപ്പോൾ ഞങ്ങൾ വെളിരാജ്യത്തുള്ള സാമ്പത്തികത്തെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത് ഇപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് അണ്ടർ ഡെവലപ്പ്ഡ് കൺട്രിയും ഡെവലപ്പ്ഡ് കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് പഴയകാലത്തെക്കുറിച്ചും പുതിയകാലത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത് കാരണം പഴയ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും പഴയ കാലത്ത് ഇങ്ങനെ എന്നാ സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ ഒന്ന് റിച്ച് ആയി വരുന്നത് കേരളം എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആണ് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്ഡ് അല്ല അത്ര അണ്ടർ ഡെവലപ്പ്ഡും അല്ല എന്നാൽ ഡെവലപ്പിങ്ങും അല്ല പക്ഷേ യു കെ യു എസ് എ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്പ്ഡ് കൺട്രി ആണ് അവിടെയെന്ന് പറയുന്നത് പണത്തിനൊന്നും ഒരു ദാരിദ്ര്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ ഇവിടെയൊക്കെ ആണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും പിന്നെ ദാരിദ്ര്യം കാണപ്പെടുന്നത്